ഇപ്പം പരിപാടികളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വീണാസ് കറി വേൾഡ് ആനീസ് കിച്ചൺ ലക്ഷ്മി നായരിൻ്റെ മാജിക് ഓവൻ ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും കാണുന്ന പരിപാടികൾ എനിക്കിഷ്ടപ്പെട്ട പരുപാടികളെന്നു പറയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പം വീണേൻ്റെ ഇവർ ഇവരുടെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്താ പാചക വിധികളും എല്ലാം ഇവരുടെയാണ് ഞാൻ കൂടുതലും നോക്കിയിട്ടുള്ളത് എനിക്ക് ഒന്നുംകൂടി ഇഷ്ടം ആനീസ് കിച്ചണിൻ്റെയായിരുന്നു കാരണം എനിക്കിഷ്ടമാണ് അവരുടെ കുക്കിങ്ങും കാര്യങ്ങളും സെലിബ്രിറ്റീസ് വരുമ്പോഴുള്ള ആ പെരുമാറ്റവും ആ ഇൻറ്റർവ്യൂവിൻ്റെ കൂടെയവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പോൾ പെരി പെരി ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ ഓരുണ്ടാക്കുന്നതു കണ്ടിട്ടാണ് ഞാനുണ്ടാക്കി തുടങ്ങിയത് നല്ല നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ മറ്റേ ലക്ഷ്മി നായരുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓളുടെയൊരു പ്രോഗ്രാമുണ്ടായിരുന്നു നമ്മൾ പുറത്തു പോയിട്ടൊക്കെ എന്താ അവരുടെ അവരുടെ സംസ്കാരത്തെ കുറിച്ചും അവരുടെ ഫുഡ് കഴിക്കുന്ന രീതിയും അവരുടെ ഫുഡ്ഡിനെ കുറിച്ചും എല്ലാം അറിയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ പുറത്തെങ്ങും പോകാൻ പറ്റിയിട്ടിലെങ്കിലും അവരുടെ പോയപോലൊരു ഫീലാണ് നമ്മളാ ഭക്ഷണം കഴിച്ചൊരു ഫീലാണ് അങ്ങനൊരു പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് എൻ എന്ത് നമ്മൾ കഴിക്കാത്തതും കഴിക്കുന്നതും ആയ ഒരുപാട് കാര്യങ്ങളും ഇല്ലേ ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പഷേ ഓര് കഴിക്കുന്നതു കാണുമ്പോൾ നമുക്കതിനോടൊരിഷ്ടം തോന്നുകയാണ് അതിൻ്റെ അത് അതവരുടെ അവരൻ അവതരണ രീതികൊണ്ടും പിന്നെ എന്താ പറയുക ഭയങ്കര നമുക്ക് നമുക്കത് കഴിക്കാൻ തോന്നിപ്പോകും അങ്ങനൊരു രീതിയിലാണ് അവരത് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് എനിക്കിവരുടെ ഇവർ മൂന്നു പേരുടെയാണ് ഞാൻ കാര്യമായിട്ട് കാണാറുള്ളത് കാരണം എനിക്കിവരുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വീണേൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ റെസിപ്പി കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ അത് നമ്മൾ അ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലതിഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ റെസിപ്പികളും